ആ അതെയല്ലോ പറഞ്ഞോളൂ ആ എന്നത്തേക്കായിരുന്നു ആ ഓക്കെ ശരിയാക്കാമേട്ടോ

നമ്മൾ എല്ലാ തരത്തിലുള്ള കസ്റ്റമൈസും ഇവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് ഇപ്പം പുതിയതായിട്ട് നമുക്ക് പിക്ചർ ആഡ് ചെയ്യുന്ന തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിന് എമൗണ്ട് കൂടുതൽ വരും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫ്ലേവറുപയോഗിച്ച് നമുക്ക് ഒരു ലെയറായിട്ടോ രണ്ട് ലെയറായിട്ടോ അങ്ങനെ ഏത് തരത്തിൽ വേണമെന്ന് പറയാമോ

ആ ഇനി ഇത് എങ്ങനെ നമ്മൾ ആ ഓക്കെ ഓക്കെ അത് പിക്ചറായിട്ട് ഓക്കെ ആ

ആ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ ആ ഡെലിവറി ചാർജില്ല എങ്ങനെ വീട്ടിൽ ഹോം ഡെലിവറിയാണോ

ആ കൊണ്ട് തരാം ഒരു ഒരു കിലോമീറ്ററ് വരെ ദൂരം എന്നാണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജൊന്നു ഈടാക്കില്ല കേട്ടോ ആ ടു കെ ജിൽ ടു കെ ജിലാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത്

ആ ഷേപ്പ് ആ സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം ഈ സ്ട്രോബെറീടെ തന്നെയാണോ രണ്ട് ലെയറു ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുകയാണെങ്കിൽ ആ അതാ നമുക്ക് സ്ട്രോബെറീൽ സ്ട്രോബെറി ലെയറ് മോൾളും താഴെ ഏതെങ്കിലും വേറെ ലെയറ് പറയാണെങ്കിൽ അത് മതി ആ എന്നാൽ ചോക്ലേറ്റ് പീസായിട്ട് വെക്കാമേ അറേഞ്ച് ചെയ്യാം പിന്നെ അതിന് കൊടുക്കേണ്ട പേസ്റ്റും സ്ട്രോബെറീടെ തന്നെയാണോ അതിന് കൊടുക്കേണ്ട പേസ്റ്റ് ക്രീമ് ആ സ്ട്രോബെറീടെ അറേഞ്ച് ചെയ്യാമേ അതിന്റെ അകത്ത് എഴുതണ്ട വിഷ് ചെയ്യേണ്ടതും ആ വിഷ് ചെയ്യേണ്ടതും ആ അത് ആ വാട്സപ്പിലിട്ടാൽ മതി ആ പിക്ച്ചറും കൂടെ

അത് ലൊക്കേഷനിടാവോ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്സപ്പ് ചെയ്തേക്കാം അതിൻ്റെ കറക്റ്റ് പേയ്മെൻ്റ്

ആ എന്നത്തേക്കാണ് വേണമായിരുന്നത് എന്നത്തേക്കാണ് വേണ്ടത്

ആ ഓക്കെ എന്നാൽ ബുധനായ്ച്ച ഉച്ചക്ക് വന്നാൽ ഇവിടുന്ന് എടുക്കാമേ ആ എന്നാൽ ശരി ഓക്കെ താങ്ക് യൂ